ഇത് സ്വിഗ്ഗിയുടെ കസ്റ്റമർ കെയർ അല്ലേ ഞാൻ ഇവിടെ ലേചിക് ഹോട്ടലിൽ നിന്നും ഒരു കോട്ടർ അൽഫാമും കുബ്ബൂസും ഓർഡറ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനതിന് മുന്നൂറ്റി അമ്പത് രൂപ ഓൺലൈനായിട്ട് പേ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ചില കാരണത്താൽ എനിക്കത് ക്യാൻസല് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കാ പൈസ റീഫണ്ട് ചെയ്ത് തരണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് എൻ്റെ ഓർഡർ ഐ ഡി അമ്പത്തി രണ്ട് മുപ്പത്തി രണ്ടാണ് ഞാൻ മുന്നൂറ്റമ്പത് രൂപ ഓൺലൈനായി തന്നെ പേമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു സാധനമാണ് പക്ഷെ ചില കാരണങ്ങളാൽ എനിക്കതിപ്പോൾ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ എനിക്കത് റീഫണ്ട് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു